എൻ്റെ ഏറ്റവും അഭിമാനകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് എജ്യൂക്കേഷൻ ഒരു വ്യക്തിക്ക് വിദ്യാഭ്യാസം എത്രത്തോളം കിട്ടുന്നോ ആ വ്യക്തി സമൂഹത്തിലൊരു നല്ല വ്യക്തിയായി മാറുകയാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഏറ്റവും വലിയൊരു അഭിമാനകരമായിട്ട് പറയാൻ പറ്റുന്നൊരു നേട്ടമാണ് നമ്മുടെ മനുഷ്യർ ഏതൊരു മനുഷ്യനാവട്ടെ വിദ്യാഭ്യാസമില്ലാത്ത മനുഷ്യർ പശുവിനു സമാനമാണ് പശു അതായത് മൃഗങ്ങൾക്ക് സമാനമാണെന്നാണ് പറയുക ആരുടെ കയ്യിലാണോ ഏറ്റവും നല്ല വിദ്യാഭ്യാസമുള്ളത് ആ വ്യക്തി സമൂഹത്തിലെ ഏറ്റവും നല്ല വ്യക്തി എന്നാണ് പറയുന്നത് അതുകൊണ്ടുതന്നെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായിട്ട് പറയാൻ പറ്റുന്നൊരു കാര്യം ഞാൻ വിദ്യ വിദ്യാഭ്യാസം നേടിയൊരു വ്യക്തിയാണ് എനിക്ക് വിദ്യാഭ്യാസം അത്യാവശ്യം എന്നാൽ കഴിയുന്ന വിദ്യാഭ്യാസം എനിക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതിനു ഒരുപാട് ഗുരുനാഥന്മാരെന്നെ സഹായിച്ചിട്ടുണ്ട് അതുകൊണ്ടുതന്നെ ഒരു ഒരു വ്യക്തി എന്ന് പറയുന്നത് വ്യക്തിയുടെ അടിത്തറ എന്ന് പറയുന്നത് ഒരു വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ എത്തിപ്പെടാൻ പറ്റുള്ളൂ മറ്റുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ അതിപ്പം ഡോക്ടർ ആവട്ടെ എഞ്ചിനീയർ ആവട്ടെ എന്തും നമ്മൾ ഈ സമൂഹത്തിൽ ജോലി ചെയ്യുക എന്ന് പറയുന്നത് അത് അതിൻ്റെ അടിത്തറ എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു നല്ല രീതിയിലുള്ളൊരു നിലയിലേക്ക് എത്താൻ പറ്റുള്ളൂ നല്ല രീതിയിൽ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ മറ്റുള്ളവരുടെ മുന്നിൽ സംസാരിക്കാൻ കുറച്ചുകൂടി ഒരു പക്വത അതുപോലെ തന്നെ ഒരു സ്റ്റാൻറ്റേർഡ് നമുക്ക് വിദ്യാഭ്യസം ഉണ്ടെങ്കിൽ നമുക്കതവിടെ കാണിക്കാൻ പറ്റും അതുകൊണ്ടു തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനകരമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നതും ഞാൻ നേടിയതുമായിട്ടുള്ള നേട്ടമെന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ്